ആറ് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മൂന്ന് ഫെബ്രവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി മൂന്ന് മാർച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് പത്ത് ഏപ്രിൽ രണ്ടായിരം ഇരുപത് മെയ് രണ്ടായിരത്തി പന്ത്രണ്ട്